ഏതായിരുന്നു ഹലോ ബുക്ക് ചെയ്യാനായിരുന്നു സർ ഒ ആ ആ ഏതാണ് ഡിസംബർ പോകുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് ഡിസംബറിലാണ് തണുപ്പവിടെ കൂടുന്നത് അപ്പോൾ നമുക്ക് നല്ല കോടമഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പോവാൻ പറ്റും നമുക്കങ്ങോട്ട് പാക്കേജ് ഉള്ളതാണ് നാല് ദിവസം ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് നല്ല പാക്കേജാണ് ട്രാവല്ലിങ്ങ് എല്ലാ കാര്യങ്ങളും നമ്മളേറ്റെടുക്കാം ഒരു കുറച്ച് സ്ഥലം നാല് ദിവസത്തെ ഓക്കെ ഓക്കെ നാല് ദിവസം ആവുമ്പോഴത്തെക്കിലും നമ്മുക്കവിടെ ഒക്കെ കുറേ വാഗമണ്ണ് ആ ഇടുക്കി ഡാം പിന്നെ പെരിയാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല വ്യൂ പൊയിന്റൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടവിടെ ആ നമുക്ക് അതെ ക്യാമ്പിംഗ് ട്രക്കിങ്ങിനൊക്കെ പോകുവാൻ പറ്റും ഓക്കെ ആ ആ അതെ ഓക്കെ ഓക്കെ അത് അതൊക്കെ നമുക്കതനുസരിച്ച് പോവാം നമ്മുക്കേതുതരം പാക്കേജാണ് വേണ്ടത് അതിനനുസരിച്ച് പോവാം ഫോർ ഡേ ആണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് അത് വൺ വീക്ക് ആക്കാനാണെങ്കിൽ നമുക്ക് ഓഫറൊക്കെ ഒണ്ട് കേട്ടോ അതെ ഫോർ ഡേ ആണെങ്കിൽ നമുക്ക് ആ എങ്ങനെയാണ് ചിലവ് എങ്ങനെയാണ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ പോകാം അപ്പോൾ ഒരു വൺ വീക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഓഫറൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വൺ വീക്ക് പാക്കേജ് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ അപ്പോൾ വൺ വീക്ക് പാക്കേജിൽ നമുക്കിപ്പോൾ വരുന്നത് ഒരു ആ എന്നാൽ എല്ലാ നിങ്ങളെത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത് ആറു പേർ അപ്പോൾ ആറു പേർക്കാണെങ്കിൽ നമ്മുക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് ഫിക്സ് ചെയ്യാം പതിനയ്യായിരം രൂപയ്ക്ക് ഫിക്സ് ചെയ്യാം ആ അതെ അതെ ഭക്ഷണം നമ്മൾ തന്നെ ഇവിടുന്ന് കൊടുക്കുന്നതാണ് ഓക്കെ എല്ലാം പതിനഞ്ച് രൂപയ്ക്ക് അപ്പോൾ നമുക്ക് ഇത് ഓരോഫറാണ് ഓക്കെ അപ്പോൾ നമുക്കതിനനുസരിച്ച് പോവാം അതാ ഞാൻ പറഞ്ഞത് ഇടുക്കി ഡാം പിന്നെ ആ എന്നാ ഈ വ വാഗമണ്ണ് അവിടെയുള്ള അഡ്വഞ്ചർ പാർക്ക് അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെയുണ്ട് നമുക്ക് ട്രക്കിങ്ങ് ചെയ്യാൻ പറ്റും പിന്നെ ആ നല്ല തണു തണുപ്പുള്ള പ്രദേശത്തൊക്കെ പോവാം ഓക്കെ ഇങ്ങോട്ട് ഇല്ലില്ല മഴയ്ക്ക് സ്ഥാനമില്ല നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവിടെ മൊത്തം തണുപ്പുള്ള പ്രദേശത്താണ് കോട ഇറങ്ങുന്ന മാസങ്ങളാണ് ഇതൊക്കെ

ഒരു വാൻ മതിയാകുമായിരിക്കുമോ ഒരു കാരവാൻ നല്ല കംഫോർട്ടബിളായിട്ടുള്ള അതെ ആ അതെ ആ നല്ല കംഫോർട്ടബിളായിട്ടുള്ള ഒരു വാനാണത് നമുക്ക് ചെറുതായിട്ട് കിടക്കാനാണെങ്കിൽപ്പോലും അവിടെ ഇടമുണ്ട് അകത്ത് ഒരു ചെറിയൊരു മിനി ടോയ്ലെറ്റുണ്ട് ഓക്കെ ആ അല്ല അല്ല ആ അതെ നിങ്ങൾക്ക് വെജ്ജാണോ നോൺ വെജ്ജാണോയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കിവിടുന്ന് കൊണ്ടുവരാമായിരുന്നു ഓക്കെ നോൺവെജ്ജ് ആണല്ലേ അപ്പോൾ നമുക്കിവിടെ കുറേ ആ കുറേ തരം ട്രഡീഷണലായിട്ടുള്ള ഫുഡ്സൊക്കെ ഉണ്ട് ഓക്കെ അതു വേണമെങ്കിൽ അതുപിന്നെ ആ മോഡേണായിട്ടുള്ള വേറെ ഏതെങ്കിലും ആ ഡിഷസാണെങ്കിൽ അത് ഓക്കെ ആ നിങ്ങൾ പറയുന്ന പോലെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓക്കെ പതിനഞ്ച് രൂപയ്ക്ക് ഓക്കെയാണ് നമുക്ക് ഒരാഴ്ച്ചത്തെ ട്രിപ്പ് ഓക്കെ ഓക്കെ അ ആ എന്നാൽ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് പേയ്മെന്റ് ഒരു ഇപ്പോൾ അഡ്വാൻസ് ഇപ്പോൾ അഡ്വാൻസ് തരിക ഇപ്പോൾ പകുതി അഡ്വാൻസ് തരിക കുറച്ച് ഓക്കെ വരുമ്പോഴത്തേക്കിനും ബാക്കി തന്നാൽമതി ഓക്കെ ഓക്കെ ഓക്കെ